ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് സമീപം പ്രത്യേകിച്ച് ഇങ്ങനെ വനങ്ങളോ മരുഭൂമികളോ തണ്ണീർത്തടങ്ങളോ ഒന്നുമില്ല നദികളില്ല മലകളില്ല പിന്നെ ആകെ ഉണ്ടെന്നു പറയാൻ ഇവിടെ അടുത്ത് ഒരു പാർക്ക് ഉണ്ട് പഴശ്ശി പാർക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അവിടെ പോയിരുന്ന് സമയമൊക്കെ കളയാനുള്ള നല്ലൊരു ഉപാധിയാണ് ആ പാർക്ക് അവിടെയാണെങ്കിൽ കുരങ്ങന്മാരുണ്ട് പിന്നെ വവ്വാലുകൾ മെയിനായിട്ട് ഉണ്ട്